ഞാൻ യോഗ ചാനലുകൾ പിന്തുടർന്നിട്ടല്ല യോഗ ചെയ്യുന്നത് പകരം ഞാൻ യോഗ ക്ലാസിന് അതായത് ടി ടി സിക്ക് പഠിക്കുന്ന സമയത്ത് യോഗ ക്ലാസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞങ്ങൾക്ക് ഒരു ട്രെയിനേഴ്സ് ട്രെയിനർ ഉണ്ടായിരുന്നു ആ ട്രെയിനറുടെ നിർദ്ദേശ പ്രകാരമായിരുന്നു ഞാൻ ഞാനും എൻ്റെ കൂട്ടുകാരും യോഗ പരിശീലിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരന്തരമായിട്ട് യോഗ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മെഡിറ്റേഷനും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ആ നല്ല ഒരു റിസൾട്ട് ആണ് ഇതിന് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് യോഗ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ കഴിയും അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് അതിൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ശ്വാസോച്ഛാസം ആദ്യമായിട്ട് നമ്മൾ ശ്വാസോച്ഛാസം എടുത്ത് അതൊന്ന് നിർത്തി വച്ച് അത് അതിൻ്റെ ഉള്ളിലേക്കെടുത്ത് ശ്വാസം ഒന്ന് നിർത്തി വെച്ച് അത് പിന്നെ ആ പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് കിട്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ശ്വാസം വിടാനുള്ളൊരു പ്രവണത ഉണ്ടാവും കാരണം എന്താണെന്ന് വച്ചാൽ നമ്മൾക്ക് അത് നമ്മളെ ശരീരത്തിന് പെട്ടെന്ന് നമ്മൾ യോഗയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആ നമ്മൾക്ക് അത് സ്വീകരിക്കാൻ സ്വയം പ്രയാസം തോന്നും പിന്നെ അത് മാത്രമല്ല ആ ഒരു പിന്നെ അങ്ങനെ നമ്മൾ യോഗ ചെയ്ത് ചെയ്ത് ചെയ്ത് അങ്ങനെ ശരിയാവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ശ്വാസോച്ഛാസം ക്രമത്തിലാവുകയും പിന്നെ യാതൊരു പ്രയാസവുമില്ലാതെ നമുക്ക് യോഗ ചെയ്യാൻ പറ്റുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഉള്ള പ്രത്യേകമായ വേറെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വച്ചാൽ നമുക്ക് പല ചിന്തകളും അതിൻ്റെ ഇടയിൽ വരും പിന്നെ നമ്മളെ കൂടെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതയിലും പിന്നെ യോഗയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവണതയും പലപ്പോഴും ഉണ്ടാവാറുണ്ട്